പഴയ റേഡിയോകളും ടേപ്പ് റെക്കോർഡുകളൊക്കെ ശേഖരിക്കാൻ ഇഷ്ടമാണ് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായിരുന്നപ്പം പണ്ടൊരു ഒരു ചൈന ടേപ്പ് റെക്കോഡ് ഉണ്ടായിരുന്നൊരു മറ്റേ പണ്ടത്തെ ഡിസ്ക്ക് വലിയ ഡിസ്ക്കിങ്ങനെ കറങ്ങി പ്ലേ ചെയ്യുന്നത് രണ്ടു സീ ഡി രണ്ടു കാസെറ്റിടാൻ പറ്റുന്നത് അപ്പം റേഡിയോയും കൂടി ഉള്ളൊരു ഇച്ചിരി വലിയ ഒരു ടി വിയുടെ അത്രയും ഉള്ളൊരു ബോക്സ് പോലത്തെ ഒരു റെക്കോർഡറ് എൻ്റെ ചെറുപ്പകാലത്തിലെ ഒരു നല്ല ഓർമ്മയാണത് ഒരുപാട് നാളുകൾ ഞങ്ങൾ അതു ഉപയോഗിച്ചു ഒരുപാട് എഞ്ചോയ് ചെയ്തു ഭയങ്കര ഒരു കൂട്ടുകാരൊക്കെ കൂടത്തിൽ വരുമ്പോൾ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുന്നൊരു സമയമായിരുന്നു ആ സാധനമൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പം അപ്പം അങ്ങനത്തെ റെക്കോർഡുകൾ പിന്നെ നമ്മൾ പറമ്പിൽ ജോലിയ്ക്കൊക്കെ പോവുമ്പോൾ ചെറിയൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് പോകാറുണ്ടായിരുന്നു മമ്മിയൊക്കെ അപ്പം ഈ പറമ്പിലെ പണിക്കും തൊടിയിൽനിന്ന് കണ്ടത്തിൽ പണികൾക്കുമൊക്കെ ആയിരിക്കുമ്പോൾ അവിടെയൊക്കെ പണിയാൻ വരുന്ന ചേട്ടന്മാരുടെ കയ്യിലൊക്കെ ഇതുപോലെ റെക്കോർഡുകളൊക്കെ കണ്ടിട്ടുണ്ട് തന്നെ പണ്ടത്തെ പഴയ ഒരുപാട് ഓർമ്മകൾ നൽകുന്നതാണ് ഈ റെക്കോർഡുകൾ അതിൽ എന്താണ് നമ്മുടെ പഴയ സിനിമ ഗാനങ്ങളൊക്കെ കേൾക്കുന്ന റേഡിയോ ചാനലുകളും അങ്ങനെ എഫ് എം അങ്ങനെ ഒരുപാട് റേഡിയോ ചാനലുകളിലൊക്കെ എപ്പോഴും ഓർമ്മയിൽ പിന്നെ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ചേട്ടന്മാർ കൊണ്ടുവരുന്ന ഈ റെക്കോർഡറ് ഒരു ഒരുപാട് ഒച്ചയിൽ ഏതെങ്കിലൊരു പാറപ്പുറത്തൊക്കെ കയറ്റി വെച്ചിട്ടായിരിക്കും എല്ലാവരും കൂടി ഒന്നിച്ച് നെല്ല് കൊയ്യുന്നതും മെതിക്കുന്നതും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും അത് ആസ്വദിച്ച് ചെയ്യുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ മനസ്സിൽ നിൽക്കുന്നതെന്നു പറയുന്നത് ഈ കൂട്ടുകാർ കൂട്ടുകാരുടെ ബർത്ത് ഡേ വിഷ് ചെയ്യാൻ വേണ്ടി പാട്ടുകൾ റേഡിയോയിൽ സ്പോൺസർ ചെയ്യും സ്പോൺസറ് ചെയ്തു പ്ലേ ചെയ്യാൻ വേണ്ടി കാർഡുകൾ അയക്കുന്നു കൂട്ടുകാരുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടേയും പേരുകളൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ച് അവരങ്ങനെ റെക്കോർഡ്